ശരിക്കും പല കാലാവസ്ഥയിലാണ് പല വിളകളും കൃഷി ചെയ്യുന്നത് അത് കൃഷിയുടെ മഹത്വത്തിൻറെ ഭാഗവുമാണ് അഥവാ ദൈവത്തിൻറെ ഒരു അത്ഭുതം എന്ന് പറയാം ഓരോ വിളക്കും അതിൻ്റെതായ സമയമുണ്ട് ഉദാഹരണമായി മണ്ണിനടിയിൽ കൃഷി ചെയ്യുന്ന വിളകൾ കുംഭമാസത്തിൽ അവ കൃഷി ചെയ്യപ്പെടുകയും കർക്കിടക മാസത്തിൽ വിളവെടുക്കപ്പെടുകയും ചെയ്യുന്നു മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന കൃഷികൾ അതുപോലെ വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്നവ അതുപോലെ ഓരോ കാലത്തിനും ആ കാലത്തിന് അനുസൃതം ആകുന്ന വിളകൾ നാം കൃഷി ചെയ്യുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് ഇവിടെ കാലാവസ്ഥ പോലും വ്യതിയാനപ്പെട്ടു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാലവർഷം എത്തുവാൻ വൈകുമ്പോൾ നമ്മുടെ കൃഷിക്ക് അവ നാശമായി തന്നെ തീരുന്നു മണ്ണിനടിയിൽ കൃഷി ചെയ്യുന്നവ കർക്കിടത്ത് കർക്കിടകത്തിൽ തന്നെ വിളവെടുക്കും കാരണം മഴക്കാലത്തിൻ്റെ കടന്നുവരവ് അവയെ നാശത്തിലേക്ക് നയിക്കും അഥവാ കർക്കിടകമാസം കഴിഞ്ഞാൽ ആ വിളക്ക് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല എല്ലാത്തിനും ഓരോ വിളയ്ക്കും അതിൻ്റെതായ ഒരു സമയ ദൈർഘ്യം ഉണ്ട് പണ്ടു കാലങ്ങൾ മുതലേ നമ്മുടെ പൂർവികർ ഇതെല്ലാം നോക്കി തന്നെയാണ് കൃഷി ചെയ്തിരുന്നത് എന്നാൽ ആധുനികതയിലേക്ക് വളർന്നപ്പോൾ നാം കൃഷിയുടെ മഹത്വം തന്നെ മറന്നു പോവുകയും ഈ കാലയളവൊന്നും അറിയാതെ തന്നെ ഒരു അപ്ഡേഷൻ്റെ ഭാഗമായി പഴമയിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഭാഗമായി കൃഷിയിലേക്ക് ഏർപ്പെടുന്ന യുവാക്കളും യുവതികളും ഉള്ള ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് എന്നാൽ അവർ പലപ്പോഴും സോഷ്യൽ മീഡിയ വഴി താനൊരു കൃഷിക്കാരൻ അഥവാ കൃഷിക്കാരി ആണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് പല കൃഷികളും നടത്തുന്നത് പലപ്പോഴും ഈ കൃഷി ചെയ്യപ്പെടുന്നവ നശിച്ചു തന്നെ പോകുവാൻ സാധ്യതയുണ്ട് കാരണം അവർക്ക് ഇതിൻ്റെ ബോധ്യമില്ല എങ്ങനെയാണ് ഒരു വിള കൃഷി ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ആ വിള വിളവെടുക്കേണ്ടത് എന്നും അതിൻ്റെ കാലക്രമം എപ്പോഴാണെന്നും അതിൻ്റെ സമയം എപ്പോഴാണെന്നും ഇതിന് എന്തൊക്കെ വളങ്ങൾ നൽകണം അതുപോലെ ഇതിന് എന്തൊക്കെ ആ സമയങ്ങളിൽ വെള്ളം നൽകണമെന്ന് ഉള്ള ബോധ്യം അവർക്ക് ഇല്ലാതെ പോകുന്നു അതുപോലെ ഇന്നയുടെ ഈ കാലത്തിൽ നമുക്ക് ദർശിതമായ ഒരു കാര്യമുണ്ട് ഒരു പാരിസ്ഥിതിക അവബോധത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് എല്ലാ വർഷവും നാം കൃഷി ചെയ്യുന്നതായ ഫോട്ടോകൾ നമ്മുടെ പബ്ലിക് പേജുകളിൽ അഥവാ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കാറുണ്ട് ഈ പ്രദർശനം ആ ദിവസത്തേക്കും മാത്രമായി ഒതുങ്ങി പോകുന്നതാണ് അതുപോലെ നമ്മുടെ കൃഷിയുടെ നാശത്തിന് അതൊരു കാരണമാകുന്നുമു ണ്ട് പരിസ്ഥിതി ദിനത്തിൽ മാത്രമല്ല പരിസ്ഥിതിയോടുള്ള അവബോധം വളർത്തേണ്ടത് എല്ലാദിനത്തിലും നാം കടപ്പെട്ടിരിക്കേണ്ടത് നമ്മൾ പ്രകൃതിയോടാണ് നമ്മുടെ പ്രകൃതി ജീവിതത്തിൻറെ നമ്മുടെ ആയുസ്സിൻ്റെ ഭാഗമാണ് നമ്മുടെ കൃഷി മണ്ണിൽ പണിയെടുക്കുന്ന കർഷകനും ഓഫീസ് കെട്ടിടങ്ങളിൽ ഇരിക്കുന്ന യുവാക്കളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഏറ്റവും കൂടുതൽ അസുഖത്തിന് അടിമകളായി മാറുന്നത് ഈ ഓഫീസ് കെട്ടിടങ്ങളിൽ എയർ കണ്ടീഷൻ റൂമുകളിൽ ഇരിക്കുന്ന യുവാക്കളും യുവതികളുമായിരിക്കും കാരണം അവർ മണ്ണിലേക്ക് ഇറങ്ങുന്നില്ല അവരുടെ കാൽ പോലും ഈ ഭൂമിയിൽ സ്പർശിക്കുന്നില്ല എന്നാൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ആ കർഷകൻ്റെ കാൽ പാദങ്ങൾ മുഴുവൻ സമയവും ഈ ഭൂമിയിലാണ് ഈ ഭൂമിയുടെ ചൂട് ആ കൽപ്പാദങ്ങളിലൂടെയാണ് അറിയുന്നത് ആ കൽപ്പാദങ്ങളിലൂടെയാണ് നമുക്ക് അന്നം ലഭിക്കുന്നത് ആ കയ്യിലെ നെറ്റിയിലെയും വിയർപ്പ് കൊണ്ടാണ് ഞാനും നിങ്ങളും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഭക്ഷിക്കുന്നത് അതുകൊണ്ടുതന്നെ എന്തിരുന്നാലും നമ്മുടെ വിഷയം എന്നു പറയുന്നത് ഒരു വർഷത്തിൽ പല പല കാലാവസ്ഥകളിലാണ് നമ്മുടെ പ്രദേശത്ത് പല വിളകൾ കൃഷി ചെയ്യുന്നത് എൻ്റെ നാടാകുന്ന നാട്ടിൽ ഒരു പ്രധാന കൃഷിയാണ് കപ്പ എന്ന് പറയുന്നത് ഇവ മഴക്കാലത്തിന് മുൻപാണ് കൃഷി ചെയ്യപ്പെടുന്നത് മഴക്കാലം ആകുന്നതിന് മുൻപ് ഇവ വിളവെടുക്കുകയും ചെയ്യുന്നു വാകത്താനം എന്ന് പറയുന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിൽ ഇവ കൃഷിചെയ്യപ്പെടുന്നത് ഒരു വലിയ ഉത്സവമായാണ് കണക്കാക്കുന്നത് എല്ലാവർഷവും ഇവ കൃഷി ചെയ്യപ്പെടുന്നു ഇന്നും പഴമയുടെ കാലത്തും അന്നും ഇന്നും എല്ലാം ഈ വിള തന്നെയാണ് അവിടെ നിരന്തരമായി കൃഷി ചെയ്യുന്നത് എന്നാൽ ചിലവിളകൾ എങ്കിലും മഴക്കാലത്ത് അകപ്പെട്ടു പോയാൽ അവയുടെ ഗുണനിലവാരം തന്നെ നഷ്ടമാക്കും കാരണം മഴവെള്ളം അവയിലേക്ക് കയറി അവയുടെ രുചിയുടെ മേന്മ നഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് പല പല കാലാവസ്ഥകളിൽ ഓരോ വിളക്കും അനുകൂലമാകുന്ന കാലാവസ്ഥ വേളകളുണ്ട് ആ വേളകളിൽ മാത്രമേ അവ കൃഷി ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ